തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് കൊല്ലം കണ്ണൂർ ആലപ്പുഴ കോട്ടയം മലപ്പുറം മൂന്നാർ തേക്കടി വയനാട് ആതിരപ്പള്ളി വാഗമൺ പൊന്മുടി ഗവി ബേക്കൽ ഫോർട്ട് നീലാമ്പതി കുമരകം